വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരുമൊത്ത് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പിച്ച് ചെറിയ ഗ്രൗണ്ടിൽ ചെറിയ മട ഓല മടലിൻ്റെ ബാറ്റും ടെന്നീസ് ബോൾ ഒക്കെ എടുത്തിട്ട് കളിക്കാൻ പോവാറുണ്ട് നീന്തൽ എനിക്കറിയില്ല അതുകൊണ്ടുതന്നെ നീന്താൻ ഞാൻ ശ്രമിക്കാറില്ല അതുപോലെ പദയാത്രയും ഞാനിതുവരെ നോക്കിയിട്ടില്ല വൈകുന്നേരങ്ങളിൽ എല്ലാ തിരക്കും മാറ്റി വെച്ച് അല്ലെങ്കിൽ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ ഒന്ന് ചിൽ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചുകൂടുന്ന ഒരു സമയം അത് നന്നായി മുതലെടുക്കാറുണ്ട് കളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും കൂടി വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് നല്ല രസമാണ് നല്ല അനുഭവമാണ് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ലെങ്കിലും അറിയാവുന്ന രീതിയിലൊക്കെ കളിച്ച് അറിയാവുന്ന രീതിയിലൊക്കെ ബോൾ ഒക്കെ ചെയ്ത് അറിയാവുന്ന രീതിയിൽ ബാറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ എല്ലാവരും ഒരേയൊരു വേവ്ലെങ്ങ്ത്ത് ഉള്ളവരായത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ക്രിക്കറ്റ് കളി കാണാറുണ്ട് വേൾഡ് കപ്പും ഐ പി എല്ലും ഒക്കെ കാണാറുണ്ട്